എനിക്ക് ഏറ്റവും കൂടുതല് ഇഷ്ടം ബീച്ചുകളാണ് ബീച്ചുകളിൽ പോയി നല്ല സൂര്യ പ്രകാശം അങ്ങനെ കൊള്ളുക അതുപോലെ മലകളുമുണ്ട് മലകളാണെങ്കിൽ മല കയറാൻ ഭയങ്കര ഭംഗിയാണ് നല്ല ആരോഗ്യം കിട്ടും നമ്മുടെ ഇടുക്കി ഇവിടെ എന്താ പറയുക പൊന്മുടി അതുപോലെ തന്നെ മറ്റേ ഇങ്ങനെ വനങ്ങളിലൊക്കെ പോവാൻ വളരെ താൽപര്യമുള്ളതാണ് ബീച്ചുകളിൽ എത്തുമ്പോള് നീന്തുന്നതും വളരെ ആരോഗ്യത്തിന് നല്ലതാണ് അതുപോലെ വനങ്ങളില് കയറുവാനായിട്ട് മലകൾ കയറുവാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് ദിവസങ്ങളോളം വനത്തിൽ കൂടെ ഇങ്ങനെ കയറുക അഗസ്ത്യ പർവ്വതം നമ്മള്ക്ക് വളരെ ചെന്ന് നമ്മള് ഒത്തിരി ഏറെ ഭൂപ്രകൃതിയും നല്ല രമണീയമായ സ്ഥലങ്ങളൊക്കെ കണ്ട് നല്ല ഒരു വെള്ളച്ചാട്ടത്തിൽ നീർച്ചാലുകളിൽ ചെന്നെത്തുക എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ് അപ്പോള് നമ്മള്ക്ക് നല്ല ആരോഗ്യം കിട്ടും നമ്മള്ക്ക് നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനമാണ് അതുപോലെ തന്നെ നീന്തല് അവിടെ ബീച്ചുകളിൽ പോകുകയെന്നു പറയുന്നതൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ബീച്ചുകളിൽ കൂടെ കറങ്ങി നടക്കുക അതുപോലെ തന്നെ നീന്തുക അങ്ങനെ ഒത്തിരി ഏറെ കാര്യങ്ങളില് ചെയ്യുവാനായിട്ട് എനിക്ക് താല്പര്യമുണ്ട്